ഹലോ ഹലോ ആ ആ ഹലോ ഹലോ ഇത് ഗ്രേസ് വെജിറ്റബിള്സ് ആണോ ആ നിങ്ങളുടെ ഞാൻ ഒരു കസ്റ്റമറാണേ ഞാനിവിടെ പെരുന്തോട്ടിയിൽ നിന്നായിരുന്നു വിളിക്കുന്നത് എനിക്ക് ആ എനിക്ക് ഇച്ചിരി ഫ്രഷായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് വേണമായിരുന്നു നല്ല നെല്ലിക്ക ഉണ്ടോ ഉണ്ട് ആ വാടിയതൊന്നും അല്ലല്ലോ അല്ലെ നല്ലതാണല്ലോ അല്ലെ ആ ആ അതെയോ ആ ഹാ ആ ആ നാടന് നെല്ലിക്ക മതിയേ മറ്റേ ഒത്തിരി വലിപ്പം ഉള്ളതല്ല നാടന് നെല്ലിക്ക ആയിട്ടുണ്ടോ ആ അത് മതി ആ അത് കുഴപ്പമില്ല അതാണ് നല്ലത് അതുകൂട്ട് ഒരു ഒരു കിലോ നെല്ലിക്ക വേണം ആ ഹാ അല്ല എനിക്ക് ഒന്നെത്തിച്ചു ആ എനിക്കൊന്ന് എത്തിച്ച് തരുമോന്നെ എനിക്കിപ്പം വന്ന് മേടിക്കാന് സമയമില്ല ഹോം ഡെലിവറി ഉണ്ടോ നിങ്ങൾക്ക് ആ എന്നാൽ ഒന്ന് കൊടുത്ത് വിട്ടാൽ മതിയേ ഞാന് പറയാം പെരുന്തൊട്ടി ഗ്രാമമറിയാം പെരുന്തൊട്ടിയിൽ ആ ജംഗ്ഷനിൽ നിന്ന് അല്ല അല്ല എനിക്കൊരു രണ്ട് മൂന്ന് കൂട്ടം വേണം ചക്ക ഉണ്ടോ നല്ല വരിക്കച്ചക്ക ഉണ്ടോ ആ വരിക്കച്ചക്ക വേണമായിരുന്നു എനിക്കൊരു മൂന്ന് നാല് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് പുറത്ത് നിന്ന് അതെയോ ആ ആ ആ പുറത്ത് നിന്ന് രണ്ട് ആ ഈ ഇടത്തരം പോരാ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് വരുന്നുണ്ട് അപ്പം ഒരു നല്ല മുഴുത്ത ഒരു ചക്കയായിരുന്നെങ്കില് നല്ലതായിരുന്നു ആ അതെ ചക്കക്ക് എന്നാ വില ആകും കിലോയ്ക്ക് എന്ത് വിലയാണ് അതെ അല്ലെ ആ നല്ല വില ആണല്ലേ ഇപ്പം നല്ല വില ആകുമ്പം അതനുസരിച്ച് നല്ല സാധനമായിരിക്കും കിട്ട് നല്ല മധുരമൊക്കെ ഉള്ളതാണോ അതോ വാടി പഴുത്തതൊന്നും അല്ലല്ലോ അല്ലേ നമുക്ക് വേണ്ടത് ആ ഒരു കിലോ നെല്ലിക്ക നല്ല നെല്ലിക്ക ഒരു കിലോയും പിന്നെ ഒരു കിലോ ഒരു കിലോയുടെ ചക്ക ഒരു ഒരു ചക്കയെടുത്ത് ആ അപ്പം ഒരു പഴവും വേണം പിന്നെ പച്ച ഒരെണ്ണം നല്ല പച്ചച്ചക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം വച്ചേക്കണം വറക്കാനാണ് ഇത് ആ വറക്കാനുള്ള ചക്ക എന്നാൽ വറക്കാന് നല്ല കരുമുരാന്നിരിക്കണം വറുത്തു കഴിഞ്ഞാല് നല്ല വേണം കാരണം ഗസ്റ്റിനൊക്കെ കൊടുത്തൊക്കെ വിടാനുള്ളതാണ് പുറത്തോട്ടൊക്കെ പോകുന്നവരാണ് അപ്പം അവര്ക്ക് കൊടുത്ത് വിടാനായിട്ടുള്ളതാണ് ആ ആ പിന്നെ എനിക്കു ഏത്തപ്പഴം ഉണ്ടോ അതൊരു ആ എനിക്ക് ഇടുക്കിയിലെ തന്നെ മതി ഇടുക്കിയിലെ ആകുമ്പം നമുക്ക് എന്തോരം ആ ആ ഇടുക്കിയിലെ മഴയായത് കാണം എല്ലാ അധികവും വിഷം അടിക്കാത്ത നല്ല ഫ്രഷായിട്ടുള്ളതാണ് ജൈവകൃഷിയൊക്കെ ചെന്ന് ആ പച്ചയും വേണം പ അതേ അല്ലെ ആ ഹോ അൻപത്തി രണ്ട് രൂപ ആണല്ലേ ചക്ക ആ വില ഉണ്ട് ആ ആ ഹാ ഹാ ഹാ അതും ഉണ്ട് ഓക്കേ എന്നാൽ പച്ച ക്കാ ഒരു രണ്ട് കിലോയും പഴം ഒരു പഴവും രണ്ട് കിലോ എടുത്തോ രണ്ട് കിലോ പഴവും രണ്ട് കിലോ പച്ചയും എടുത്തേക്ക് ആ മാങ്ങ അവർ വരുമ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നാട്ടിൽ നിന്ന് വരുമ്പം മാങ്ങാപ്പഴം കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് പിന്നെ മാങ്ങാ ഇപ്പം വേണ്ട ഇപ്പം എന്നാ നെല്ലിക്കയും അതെയോ തണ്ണിമത്തന് അതെയോ ആ തണ്ണിമത്തന് പിന്നെ ഞങ്ങൾ മേടിച്ചുകൊള്ളാം ഞങ്ങൾക്ക് വീട്ടാവിശ്യത്തിന് വേണ്ടി ഞങ്ങൾ പിന്നെ മേടിച്ചുകൊള്ളാം ഇപ്പം എനിക്ക് മൂന്ന് കൂട്ടം മതിയേ ആ ഏത്തപ്പഴം രണ്ട് കിലോയും പച്ച ഏത്തയ്ക്ക രണ്ട് കിലോ ആ ആ ആ പച്ചച്ചക്ക വറക്കാൻ വറക്കാനെന്ന് പറഞ്ഞാൽ നല്ല ചക്കയാണെങ്കിലെ കൊടുത്തുവിടാവുള്ളൂ കേട്ടോ അല്ലേല് വെറുതെ നമ്മുടെ പൈസ കളയരുത് നല്ല ചക്കയാണോന്ന് നോക്കി അത് അത് അല്ലെങ്കിൽ അതെയോ ഹാ ഹാ ഹാ മേടി ആ അങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നത് കിട്ടുന്നതൊക്കെ ആ അതേ അല്ലെ ഹാ ആ

അതെ അല്ലെ ആ ആ ഹാ ആ ഏത് വര്ഷം മുഴുവന് വാങ്ങിക്കുന്നത് ആ അതുകൂട്ടൊക്കെ നമ്മുടെ ഇവിടെ ചക്ക അതുകൂട്ടൊക്കെ വരാന് തുടങ്ങിയോ ആ അതേ അല്ലെ ആ ആ ഹാ ആ ആ ആ ആ ഉം ഉം ഉം ഉം പെരുന്തൊട്ടിയിൽ ഒന്ന് ആ പെട്ടി ഓട്ടയ്ക്ക് കൊടുത്ത് പെരുന്തൊട്ടിയിൽ നമ്മുടെ ആ പൈസ ഞാന് ഗൂഗിള് പേ ചെയ്തോളാം ഈ ഫോണ് നമ്പറിൽ ചെയ്താൽ പോരെ ആ ചെയ്തേക്കാം ആ അപ്പം നമ്മളുടെ കുരിശുന്തൊട്ടിയുടെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് കിടക്കുന്ന റോഡിൽ കൂടെ അങ്ങ് വന്നാൽ മതി അപ്പം അവിടെ വരുമ്പം ഒരു വാട്ടര് ടാങ്ക് കാണും ജലനിധിയുടെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിന്റെ അവിടെ എത്താറാകുമ്പം എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ മതി ആ എന്നാൽ ആ ആ ആയിക്കോട്ടെ ഓക്കെ